തലവേദന വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് മൈഗ്രെയ്നൊക്കെ പോലുള്ള തലവേദനയാണങ്കില് തലയിലിങ്ങനെ തുണി അമർത്തി കെട്ടിയിട്ട് ഫ്രെണ്ട്സ്സക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ടൈറ്റായിട്ടിങ്ങനെ തുണി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവര് പറയും കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പിന്നെ നമ്മള് പനി വരുമ്പം ചെയ്യുന്നത് പോലെ തന്നെ തുണി നനച്ചിട്ട് നെറ്റിയിലിടുന്നത് തലവേദന കുറയും അത് ആ തുണി ഉണങ്ങി കഴിഞ്ഞാൽ വീണ്ടും നനച്ചിട്ട് നെറ്റിയിലിങ്ങനെ കുറച്ച് നേരിട്ട്കഴിഞ്ഞിട്ടുണ്ടെങ്കില് നല്ല ആശ്വാസം കിട്ടും പിന്നെ ഉലുവ വറുത്ത് തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ് ഉലുവ ആദ്യം ഒരു ചട്ടിയിൽ എങ്ങനെ ഇട്ടിട്ട് വറുക്കുക അതിന് ശേഷം നമ്മള് ചായ ഒക്കെ ഉണ്ടാക്കുന്നതുപോലെ ഇത് ഉലുവ തിളപ്പിച്ച് കുടിക്കുക പിന്നേ ഉലുവ അങ്ങനെ തുണിയിൽ കെട്ടിയിട്ട് നെറ്റിയിൻ മേൽ ഇങ്ങനെ അമർത്തി കൊടുക്കുന്നതും നല്ലതാണെന്ന് അച്ഛമ്മ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അച്ചമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ പ്രധാനമായിട്ടും നമ്മള് വല്ലാതെ സ്ട്രെയ്ൻ ചെയ്യുമ്പഴാണ് ഫോണില് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുമ്പോഴാണ് തലവേദന വരിക അപ്പം അത് കുറയ്ക്കുക പിന്നെ നേരത്തിന് ഫുഡ്ഡ് കഴിക്കാതാകുമ്പഴും ഉറക്കം കിട്ടാതാകുമ്പഴും ഒക്കെ തലവേദന വരും അപ്പം അതൊക്കെ നമ്മള് അതിനോരോ ടൈം വെച്ചിട്ട് കറക്റ്റായിട്ട് ഫുഡ്ഡ് കഴിക്കുക് എട്ട് മണിക്കൂറല്ലങ്കിലേഴ് മണിക്കൂർ ഉറങ്ങുക അതൊക്കെ ചെയ്തുകഴിഞ്ഞാല് സ്വഭാവികമായിട്ട് തലവേദന കുറയും